ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നു വച്ചാൽ സ്ത്രീകളിലുള്ള സ്ത്രീകളിലുള്ള കടന്നു കയറ്റം അതായത് സ്ത്രീകൾക്ക് ഇപ്പം ഒരു സമയം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല പിന്നെ അതേപോലെ കുട്ടികൾക്ക് വീട്ടിൽത്തന്നെ നമുക്ക് സുരക്ഷിതം ഇല്ല ഇപ്പോൾ എല്ലാവരും പറയുന്നതുപോലെ സ്വന്തം അച്ഛനെപ്പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം എന്നാണ് ഇപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം കുട്ടിയാണ് പെൺകുട്ടികൾക്ക് അതായത് മൂന്ന് വയസ്സുള്ള കുട്ടികൾ പോട്ടെ ഒരു വയസ്സുള്ള കുട്ടികളെ വരെ ഇപ്പോൾ പീഡിപ്പിക്കുന്ന കാലമാണ് കുട്ടികൾക്ക് ഒരു സ്ഥലത്ത് പുറത്ത് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല അതേപോലെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ അതായത് അതായത് ആണുങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമാണത് നമ്മൾ അതായത് അവർ ഒരു ഇത് ഇതായിട്ടു മര്യാദയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കാനില്ല പിന്നെ സർക്കാറിൻ്റെ സർക്കാറിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഒരു പ്രശ്നമാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് വരുന്നത് സർക്കാറിൻ്റെ ഇടപെടലുകൾ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു പ്രാവശ്യം തന്നെ ഈ പീഡനത്തിൻ്റെ എന്തെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടങ്കിൽ തന്നെ അവർ അതായത് ജീവപര്യന്തം അല്ലാണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടങ്കിൽ വധശിക്ഷ തന്നെ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഒരിക്കലും ഉണ്ടാവില്ല അത് സർക്കാറിൻ്റെ ഇടപെടലിൻ്റെ ഒരു തെറ്റ് തന്നെയാണ് എൻ്റെയൊരു ഇതിൽ ഇന്ത്യയിൽ ഇന്ന് അഭിമുഖീകരിക്കപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്